ഞാൻ കെറ്റിലാണ് വാങ്ങിയത് മറ്റേ ആമസോണിൽ നിന്ന് സൂപ്പർ കെറ്റിലാണ് നന്നായിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനും നമുക്ക് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനു വേണ്ടി വാങ്ങിയതാണ് നല്ല ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നന്നായിട്ട് ഈട് നിൽക്കുന്നുണ്ട് പിന്നെ ഒരു എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ആ പ്രൊഡക്റ്റും കൊണ്ട് എനിക്ക് ഭയങ്കര കെറ്റിൽ എന്നൊരു പ്രൊഡക്ട് നമുക്ക് കുറേ ഉപകാരമുള്ളതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കുറെയൊക്കെ കറണ്ട് ചാർജൊക്കെ ആവും എന്നാണ് കരുതിയത് പക്ഷെ നല്ലൊരു പ്രൊഡക്ട് വലിയ കറണ്ട് ചാർജില്ല വേഗം നമുക്ക് എല്ലാം വേഗം വേഗം ആക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ വലിയ ഡാമേജ് ഒന്നുമില്ല നല്ല ഇതിൽ തന്നെയാണ് അവർ ഇവിടെ എത്തിച്ചത് നല്ല പ്രോഡക്ടാണ് ഉപയോഗിച്ചതിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണത്